ആ അബീസ് ടെയിലറിങ് ഷോപ്പ് അല്ലേ ആ ഞാനിങ്ങനെ പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വിളിച്ചതാണ് നിങ്ങൾ ഡിസൈൻ പിന്നെ ചെയ്തിട്ട് തയ്ച്ചിട്ട് ഇങ്ങനെ വിൽപ്പന ചെയ്യുന്നുള്ളത് കണ്ടിട്ട് വിളിച്ചതാണ് ഓ ആ എനിക്ക് പിന്നെ കുറച്ച് ഡിസൈൻസ് വേണം എനിക്കൊരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത അടുത്ത മാസം ലാസ്റ്റ് ആണ് കല്യാണം വരുന്നത് അപ്പോൾ പിന്നെ പെണ്ണിന്റെയും ചെറുക്കന്റെയും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കുറച്ച് അധികം ഡിസൈൻസ് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഒരു കുറച്ച് പ്ലെയിൻ ഒരുപോലത്തെ കളറുകൾ പ്ലെയിൻ സാരിയെടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഡിസൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ഒരു

ആ അത് കുഴപ്പമില്ല ഇപ്പോൾ ആ അടുത്ത അടുത്ത മാസം ഒരു മുപ്പതൊക്കെ ആകുമ്പോൾ ആണ് വെഡ്ഡിങ്ങ് മുപ്പതിനൊക്കെ കിട്ടിയാൽ മതി ഒരു അടുത്തത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഫസ്റ്റ് ആണ് കല്യാണം വരുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുടെ ഗൌണുകൾ വേണമായിരുന്നു പിന്നെ പിന്നെ കല്യാണ പെണ്ണിനൊരു പിന്നെ ലെഹങ്ക വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ കളറും അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരുമോ എന്ന് ചോദി ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ ആ നിങ്ങൾ ഫോട്ടോസ് ഉണ്ടോ കൈയ്യിൽ ഡിസൈൻ ആ നിങ്ങളുടെ കൈയ്യിൽ ഡിസൈൻസ് ഉണ്ടോ ആ എന്നാൽ അത് കുറച്ച് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ പെണ്ണിൻ്റെയാവുമ്പോൾ ആ കല്യാണ പെണ്ണിനാവുമ്പോൾ കുറച്ചധികം വർക്കുകൾ വേണമല്ലോ അപ്പോൾ പിന്നെ ആ അന്ന് ലെഹങ്ക അന്നും തലേന്നും ലെഹെങ്കയായിരുന്നു വേണ്ടത് വേറെ വേറെ കളറിൽ തലേന്നത്തേത് അധികം വർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കല്യാണത്തിന് അന്നുള്ള നല്ല ഡിസൈൻ തന്നെ ആയിരിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചത് അതിൻ്റെയൊക്കെ റേറ്റ് ആ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ ഞങ്ങൾക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആയാലും കുഴപ്പമില്ല അതിൻ്റെ മേലോട്ട് പോവേണ്ട ഒരു ഫിഫ്റ്റിയിലൊതുങ്ങുന്നത് മതി പിന്നെ അതുപോലെ ചെറിയ ആ ആ ഓക്കെ പിന്നെ ചെറിയ മക്കൾ ആ ആ പിന്നെ ചെറിയ ഒരു പിന്നെ ബോയ്സിൻ്റെതായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുണ്ടോ അവിടുന്ന് ആ എന്നാൽ പിന്നെ ഒരു ഒരു അഞ്ച് അഞ്ചാറ് കുട്ടികൾക്കൊരു ഷർട്ട് വേണമായിരുന്നു ഒരേ കളറിൽ ഒരു റെഡ് ഷർട്ട് ആണ് ഒരു റെഡ് കളർ ഷർട്ട് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് തുണി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിനൊരു ഷർട്ടിൻ്റെ ഞങ്ങൾ കുട്ടികളെയും കൂട്ടി വെരാം അളവ് അവിടെ വന്നിട്ട് എടുത്താൽ പോരേ ആ ആ എന്നാൽ ഞങ്ങൾ അപ്പം വരാം പിന്നെ അതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഷർട്ടിനൊക്കെ ആ ആ എന്നാൽ കുഴപ്പമില്ല പിന്നെ ഈ സാരിക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് എത്ര വരും ആ അപ്പം അതിൻ്റെ ത്രെഡ്സും പിന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പം കുറച്ച് റേറ്റ് ആവുമല്ലോ അല്ലേ ആ അപ്പോൾ അത് ആ എന്നാൽ അത് വന്നിട്ട് നോക്കാം ആ എന്നാൽ ഓക്കെ ഞാൻ അങ്ങോട്ട് ഒന്ന് വരാം ആ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അയച്ച് തന്നാൽ മതി ഞാനത് നോക്കിയിട്ട് ആ ആ എന്നാൽ ഓക്കെ